ആറ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാല് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തിയേഴ് മൂന്നു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത്തൊന്പത് ഏഴ് ലക്ഷം നാലു ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത്